നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളുടെ സംസ്ക്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഓണം അപ്പോൾ ഓണത്തിനെക്കുറിച്ച് എല്ലാ കഥകളും എല്ലാവർക്കും അറിയാവുന്നതാണ് ഓണത്തിന് നമ്മൾ കുടുംബസമേതം എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഉത്സവമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ നമുക്ക് ഒരു വിശ്വാസം ഉണ്ട് മാവേലി അല്ലെങ്കിൽ മഹാബലി നമ്മളെ വർഷത്തിൽ ഒരിക്കൽ നമ്മളെ കാണാൻ വരും എന്നുള്ള ഒരു സങ്കല്പം ഉണ്ട് അദ്ദേഹം നന്മയുടെയും പ്രതീക്ഷയുടെയൊക്കെ ഒരു പ്രതീകമാണ് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്ത് കൂടണ ഒരു ഉത്സവമാണ് അപ്പോൾ എൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടുകുടുംബമാണ് അപ്പോൾ എല്ലാവരും ഒത്തുകൂടണ ഒരു സാഹചര്യമാണ് ഒരുപാട് കറികളും ഒരുപാട് തമാശകളും പൂക്കളമിട്ടും അങ്ങനെ ഒരുപാട് കളികളും ഒക്കെ ചേരുന്ന ഓണം എന്ന് പറയണത് നല്ലൊരു ഉത്സവമാണ്